വിഭവങ്ങളുടെ ലഭ്യതക്കുറവ് ഉയർന്ന ചികിത്സാചെലവ് നീണ്ട ക്യു തുടങ്ങിയ മോശം അനുഭവങ്ങൾ പല സമയത്തും നമ്മുടെ അലട്ടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് വിഭവങ്ങളുടെ ലഭ്യതക്കുറവ് ഉണ്ടാകുന്ന പ്രധാന കാരണമെന്തെന്നാൽ ഇപ്പോള് നമ്മുടെ സ്ഥലത്ത് ആ കൃഷിസ്ഥലങ്ങൾ കുറഞ്ഞുവരികയും ആ സ്ഥലങ്ങളിലെല്ലാം ആൾക്കാർ ഭവനങ്ങളോ അല്ലെങ്കില് വലിയ വലിയ ഫാക്ടറികളോ ഫ്ളാറ്റുകളോ ഒക്കെ കെട്ടിപ്പൊക്കുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊന്നും ഇപ്പോള് വ്യവസായ കൃഷിയോ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ടുതന്നെ പുറത്തുനിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇവയെ എല്ലാം ആശ്രയിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോള് അതുകൊണ്ടുതന്നെ അവിടെനിന്ന് സാനങ്ങൾ സഞ്ചരിച്ച് ഇവിടെ എത്തുമ്പോള് വില നന്നായി കൂടുന്നതുകൊണ്ട് എല്ലാവർക്കും ഇത് വാങ്ങാനോ ഉപയോഗിക്കാനോ പല സമയത്തും സാധിക്കാറില്ല ഉയർന്ന ചികിത്സാ ചെലവ് പല പ്രൈവറ്റ് ആശുത്രികളിലും ഉയർന്ന ചികിത്സാ ചെലവുണ്ട് പിന്നെ ഗവൺമെൻറ്റ് ആശുപത്രികളിലാണെങ്കില് നീണ്ട വരികൾ നിന്ന് മനുഷ്യർ മടുക്കാറാണ് പതിവ് ഇപ്പോള്ത്തന്നെ പല പല സ്ഥലത്തും ആൾക്കാര് അസുഖങ്ങളൊക്കെ ആയിട്ട് ആശുപത്രിയില് പോകുമ്പോള് വരിയിൽനിന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഡോക്ടർമാരുടെ ലഭ്യതക്കുറവ് പിന്നെ കറക്റ്റായിട്ട് സാങ്കേതികമായിട്ട് കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെ ഒരു മികവ് ഇല്ലാത്തതു കൊണ്ടാണ് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് പിന്നെ ചികിത്സാ ചെലവ് കൂടുന്നതിൻ്റെ കാരണം എന്തെന്നാൽ അത് പല കമ്പനികളും അധികമായി മരുന്നുകൾക്ക് വിലകൾ ഈടാക്കുന്നു അതുപോലെ അത് തന്നെ ഇതിനൊരു നിയന്ത്രണം ഒരു ഗവൺമെൻറ്റും കൊണ്ടുവരാൻ തയ്യാറല്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ടാണ് പലതിൻറ്റെയും വില അതിമിതമായി ഉയരുന്നത് പിന്നെ ചില കമ്പനികളുടെ മരുന്നുകൾ പേറ്റൻറ്റ് ഉള്ളതുകൊണ്ട് അത് വേറെ ആർക്കും അതിന് ആ മെഡിസിൻ ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും അതുകൊണ്ടുതന്നെ അതിൻ്റെ വില ആ കമ്പനിക്ക് മാത്രം നിശ്ചയിക്കാനുള്ള അനുമതിയേ ഉണ്ടായിരിക്കുകയുള്ളൂ അതും ഇതിനെല്ലാം ഒരു കാരണമാണ് പിന്നെ ഗവൺമെൻറ്റ് ആശുപത്രികളിലെ ഡോക്ടർമാരും പിന്നേ അവിടത്തെ സ്റ്റാഫുകളുടെയും പല അനാസ്ഥകൾ കാരണം പലപ്പോഴും രോഗികൾക്ക് അല്ലെങ്കില് കൂടെ കൂട്ടിരിപ്പുകാർക്കൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാവുകയും അങ്ങനെ അവർ അമിതമായി പൈസ ചെലവാക്കിയാലും ഗവൺമെൻറ്റ് ആശുപത്രികളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അത് ഗവൺമെൻറ്റ് ആശുപത്രികളിൽ നിന്ന് മുതലാക്കുകയും അവര് അതിനുവേണ്ടി അമിതമായ ചിലവ് ഫീസ് ബില്ലുകൾ ഈടാക്കുകയും ചെയ്യുന്നു ഇതെല്ലാം ഒരു കാരണമാണ്